അടുത്തുള്ള പട്ടണങ്ങൾ ഗ്രാമങ്ങൾ സന്ദർശിക്കാറുണ്ട് അടുത്തുള്ള പട്ടണം അഞ്ചലാണ് പല ആവശ്യങ്ങൾക്കും പോകാറുണ്ട് മാർക്കറ്റിൽ പോകുന്നത് അവിടെയാണ് മീൻ വാങ്ങാനും മ വീട്ടു സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ഞങ്ങൾ പോകാറുണ്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ അതുപോലെതന്നെ വിട്ടു ആവശ്യങ്ങൾക്കുള്ള മറ്റു സ്റ്റേഷനറി സാധനങ്ങൾ ഇതെല്ലാം ഞങ്ങൾ അടുത്തുള്ള അഞ്ചൽ എന്നു പറയുന്ന പട്ടണത്തിൽ പോയാണ് വാങ്ങുന്നത് അതിവിശാലമായൊരു പട്ടണമാണ് അല്ല എല്ലാ സൗകര്യവും എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന ഒരു പ്രദേശമാണ് അഞ്ചൽ പട്ടണം അതുപോലെതന്നെ അവിടെ മാർക്കറ്റ് വലിയ ഒരു കമ്പോളമുണ്ട് അഞ്ചൽ കമ്പോളം അവിടെ നമ്മുടെ സാധനങ്ങൾ കൊണ്ടു വിൽക്കുവാനും പച്ചക്കറികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുവാനും ഒക്കെയുള്ള സൗകര്യമുണ്ട് അതു കൊടുത്തിട്ട് നമുക്കാവശ്യമുള്ള വീട്ടു സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങുന്നത് അഞ്ചൽ പട്ടണത്തിൽ നിന്നാണ്